നമ്മുടെ പ്രദേശത്തെ കളികളെന്ന് പറയുമ്പോള് പാരമ്പര്യമായിട്ടുള്ളൊരു കളികളൊന്നും ഇവിടെ ഇല്ല പിന്നെ പ്രധാനമായിട്ടൊരു കളി എന്നത് ഫുട്ബോളാണ് അതേപോലെ തന്നെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് പിന്നെ ബാഡ്മിൻ്റല് ഇതൊക്കെ ഇവിടെ കളിക്കുന്നുണ്ട് ഫുട്ബോളിനെക്കുറിച്ച് പറയുകയാണെങ്കില് സെവൻസ് എലവെൻസ് എന്നൊക്കെ പറഞ്ഞാണ്ട് പല സെവൻസ് രണ്ട് ഭാഗത്ത് ഏഴ് പേര് ഉണ്ടാവും അതേപോലെ ഇലവൻസ് രണ്ടുഭാഗത്തും പതിനൊന്ന് പേര് കളിക്കുന്നൊരു കളിയാണ് ഇതിൻ്റെ കളി അത് നമ്മള് കളിക്കുമ്പോള് നമ്മള് ഫുട്ബോളെങ്ങനെ കളിക്കണോ അതേപോലെ കളിക്കും ഷൂ ഇട്ടാണ്ട് ബൂട്ടൊക്കെയിട്ട് കളിക്കുന്നവരുമുണ്ട് ഡ്രെസ്സ് ഹാഫ് ട്രൗസറും പിന്നേ അതേപോലെ ടീഷർട്ടും ഷൂ ഇട്ടോണ്ട് കളിക്കും ബൂട്ടിട്ടോണ്ട് കളിക്കും അതേപോലെ ക്രിക്കറ്റ് കളിക്കുമ്പോള് അതിനുവേണ്ട ഉപയോഗിക്കുന്ന സാധങ്ങള് ഉപയോഗിക്കും പിന്നേ അതേ പാഡ് ഷൂവ് ബാറ്റ് ഗ്ലൗസ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങള് അതും കളിക്കാറ് അതേപോലെ ബാഡ്മിൻ്റല് ബാഡ്മിൻ്റലും അതേ രീതിതന്നെയാണ് അതില് എങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത് അങ്ങനെ തന്നെയാണ് അത് കളിക്കുക അല്ലാതെ പ്രത്യേകമായിട്ട് ഇവിടെ ഒരു പരമ്പരാഗതമായിട്ടുള്ളൊരു കളികളൊന്നും ഇല്ല സാധാരണ ഒരു കളികളെന്നു പറയുമ്പോള് പരമ്പരാഗതമായിട്ടുള്ളൊരു കളി എന്ന് പറയുന്നത് നമുക്ക് സംബന്ധിച്ചിടത്തോളമത് ഫുട്ബോളന്നാണ് കഴിഞ്ഞിട്ടാണ് പിന്നെ ക്രിക്കറ്റ് ബാഡ്മിൻ്റല് മറ്റേ കുറച്ചൊക്കെ ഹോക്കി ഇതൊക്കെ വരുന്നത്